ഹലോ സാറേ ഞങ്ങള്ക്ക് വീട് വെച്ചിട്ട് നാലഞ്ച് വര്ഷമായിട്ട് നാലാ അയ്യായിരം രൂപ നാലായിരം രൂപ അങ്ങനെയാ ഒരു ലെവലിലാണ് ഞങ്ങള്ക്ക് കരണ്ട് ബില്ല് വരുന്നത് എന്നാലത്രേയ്ക്കുമുള്ള കരണ്ട് ബില്ലിനുള്ള കരണ്ട് ഞങ്ങള് ഉപയോഗിക്കുന്നില്ല ഞങ്ങളത് പരാതി കൊടുത്തപ്പോള് അവര് പറയുന്നത് നിങ്ങള് ബള്ബ് മാറ്റ് കരണ്ടിന്റെ ഉപയോഗങ്ങള് മാറ്റ് പഴയതെക്കെ മാറ്റ് എന്നെക്കെയാ പറയുന്നെ പഴയ ഫാനുകളൊക്കെ ഞങ്ങള് മാറ്റി അതുപോലെ കരണ്ടടുപ്പ് ഉപയോഗിക്കുന്നില്ല മിക്സി ഞങ്ങള് മാക്സിമം ഉപയോഗിക്കുന്നില്ല തേപ്പുപെട്ടി ഞങ്ങളിപ്പോള് തേ കരണ്ട് തേപ്പുപെട്ടി മാറ്റി സാധാ തേപ്പുപെട്ടിയിലേക്കായി പക്ഷെ എന്നാലും ഞങ്ങള്ക്ക് കരണ്ട് ബില്ല് കുറയുന്നില്ല അപ്പോള് സാറേ അത് എന്താ അതിന് ചെയ്യാന് പറ്റുന്നേന്ന് ഞങ്ങള്ക്കൊരു ഹെല്പ്പ് ചെയ്താല് കൊള്ളാമായിരുന്നു അത് ഒന്നുകില് ഒരു ലൈന്മാനെ വിട്ട് ഞങ്ങള്ക്കതൊന്ന് എര്ത്തായി പോകുന്നാണോ എങ്ങനെയാണോ നോക്കി തരാന് പറഞ്ഞിട്ടവര് ഇന്നു വരാം നാളെ വരാം എന്നും പറഞ്ഞിരിക്കുവാ അപ്പോള് ഞങ്ങള്ക്കൊരു ലൈന്മാനെ വിട്ടതെന്താന്ന് ചെക്ക് ചെയ്തു തരാനുള്ളൊരു ദയ ഞങ്ങളോട് കാണിക്കണം